ഇപ്പോൾ ആയോധന കലകള്ളൊക്കെ പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമുക്ക് വേണമെങ്കിൽ പറയാം കളരി പിന്നെ അതൊക്കെയൊരു ആയോധനകലയാണ് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ നമുക്ക് ആയോധന കല എന്ന് പറഞ്ഞത് ആ നമുക്ക് ശരീരത്തിന് നല്ലതാണ് അപ്പവും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരമൊക്കെ നല്ലവണ്ണം ഇളകുകയാണെങ്കിൽ നമുക്ക് പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ മാത്രമല്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരുപാട് ഇന്നത്തെ കാലത്ത് പീഡനങ്ങൾ കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു കാലമാണ് കാലഘട്ടാണ് അതോണ്ട് എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ പെൺകുട്ടികൾക്ക് കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ആയോധന മേഖലകളിലൊക്കെ പഠിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ അവർക്ക് ഇപ്പോൾ എപ്പോഴും ഇപ്പോൾ ഒരാൾ കൂടെ ഉണ്ടാവില്ല അപ്പമെന്ന് വെച്ചിട്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്ത് ഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും ഒക്കെ അറിയുണങ്കിൽ നമുക്ക് അവരുമായിട്ട് നേരിടാനുള്ള ഒരു സാമർത്ഥ്യം ഉണ്ടാവും ധൈര്യവും ഉണ്ടാവും അല്ലാണ്ട് എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ അല്ലാണ്ട് നമുക് സാമർത്യവും ഉണ്ടാവില്ല ധൈര്യവും ഉണ്ടാവില്ല നമ്മള് പേടിച്ചിരിക്കും നമുക്കൊന്ന് ആ നമുക്കിപ്പോൾ ഒരു വലിയ മനുഷ്യൻ നമ്മളെ നേരെ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊന്ന് വെച്ചിട്ടുണ്ടങ്കിൽ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടങ്കിൽ നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ പഠിക്കണം എന്നാണ് എന്റൊരു എല്ലാവരും പഠിച്ചിട്ടുടെങ്കിൽ അത്രയു നല്ലതാണെന്നാണ് എൻറെ ഒരു അഭിപ്രായം